ആ ഷീജേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് ആ ഞാൻ ഞാൻ ഇന്നലെ മലബാർ ഗോൾഡിലും കല്യാൺ സിൽക്സിലുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതായത് സിസ്റ്റർ മാര്യേജ് അല്ലേ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാലോ എന്ന് വച്ച് പോയി ട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ടെക്സ്റ്റൈൽസിൽ ആണെങ്കിൽ ഭയങ്കര ഓഫറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പത്ത് സാരി എടുക്കുമ്പോൾ നമുക്ക് ട്വൻറ്റി പെർസൻറ്റേജ് ഓഫറ് എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ഞാനും അമ്മയും കൂടി ഇന്നലെ കല്യാൺ സിൽക്സിൽ കയറി എന്നിട്ട് ഞങ്ങൾ കുറേ സാരി ഒക്കെ നോക്കി എന്നിട്ട് ഞങ്ങൾ ഏകദേശം ഏതായാലും ഞങ്ങൾക്ക് കുടുംബക്കാർകൊക്കെ സാരി എടുക്കണമല്ലോ അതായത് നമുക്ക് ബ്യൂട്ടീഷനൊക്കെ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ വിളിച്ച് ഒരു പത്ത് സാരി നമ്മൾ എടുത്തു അവർ പറഞ്ഞ ഏകദേശം ഓഫർ അനുസരിച്ച് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആണെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ട്വൻറ്റി പെർസൻറ്റേജ് നമുക്ക് ഓഫറായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഏകദേശം പറഞ്ഞ് വരുമ്പഴത്തേക്ക് നമുക്ക് ഏകദേശം നമ്മളെ വേറെ ഉള്ള ഷോപ്പുകളിലുള്ള റേറ്റ് തന്നെ ആയിട്ടുണ്ട് അങ്ങനെ ആണ് പിന്നെ ഓഫറിൻ്റെ പറഞ്ഞിട്ട് ഉള്ളത് അതുപോലെ തന്നെ ചേച്ചിൻ്റെ പിന്നെ മലബാർ ഗോൾഡിന് വേണ്ടിയിട്ട് എടുത്ത് നോക്കുക ആണെങ്കിൽ അവിടെ നമുക്ക് സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ പിന്നെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നേ ഉള്ളുവെന്നൊക്കെ പറഞ്ഞിട്ട് പണിക്കൂലി വളരെ കുറവാണ് എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ പോയി നോക്കിയത് സ്വർണ്ണത്തിന് എല്ലാം എടുത്തിട്ട് പിന്നെ ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഒരു പവൻ്റെ ഒരു മാല എടുത്ത് നോക്കുമ്പോഴേക്ക് ഏകദേശം നമുക്ക് നാൽപ്പത്തഞ്ചായിരം റുപ്യയോളം വരുന്നുണ്ട് പണിക്കൂലി ഭയങ്കരം കത്തി തന്നെ ചേച്ചി ഇപ്പോൾ ആ കുറച്ച് മുമ്പേ ഒക്കെ പിന്നെ കല്യാൺ സിൽക്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെ ആ പിന്നെ അനിയത്തിൻ്റെ മോളെ കല്ല്യാണത്തിന് അപ്പോൾ നിങ്ങൾ കല്യാണിൽ പോയി നല്ല സെലക്ഷൻ എല്ലാം പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ അവിടെ പോവുമ്പോഴൊക്കെ ഇങ്ങനെ ഈ ഓഫറും കാര്യങ്ങൾ എല്ലാം ഉണ്ടായിനോ അതുപോലെ തന്നെ നിങ്ങളെ ഗോൾഡ് എല്ലാം എവിടുന്നേനു നോക്കിയത് മലബാറിന്ന് തന്നെ അല്ലേനാ

ആ ആ ഓഫറ് കണ്ടിട്ട് പോയി നോക്കുമ്പഴത്തേക്ക് ഞങ്ങൾ പെട്ട് പോയി അതാണ് സ്ഥിതി ഓക്കെ ആദ്യം കല്യാൺ നിന്ന് എനിക്ക് ഒരു അഞ്ച് സാരി എടുത്തിരുന്നു അപ്പോൾ റേറ്റിൽ വലിയ വ്യത്യാസം ഒന്നും കാണുന്നില്ല ഓഫറു എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേങ്കിൽ കുറച്ച് പിന്നെ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും ആ നിങ്ങൾ പോയി എന്നെല്ലാം പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ ഒന്ന് നോക്കി നോക്കിയതാണ് ഓഫറും കാര്യങ്ങൾ നോക്കുമ്പോൾ പക്ഷേ എങ്കിൽ ഭയങ്കരം തന്നെ കത്തി പൈസ യാണ് ഓഫറൊന്നും ഇത് ഇവർ നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടത് ആണ് ആ ആ ഞാൻ അത് പറയാൻ വേറെ ഒന്നും ഇല്ല നിങ്ങൾ പോയത് കൊണ്ട് ചോദിച്ച് നോക്കിയതാണ് ഉം ആ എന്നാൽ ശരി നേരിട്ട് കാണാം ഓക്കെ ശരി ചേച്ചി ഓക്കെ ശരി ഓക്കെ